കണ്ണൂർ മുഴപ്പിലങ്ങാടാണ് ഞാൻ താമസിക്കുന്നത് അപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ അതായത് കൂടുതലും ഞായറാഴ്ച വൈകുന്നേരങ്ങളിലാണ് ഈ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോകാറ് അപ്പം നടന്നിട്ടാണ് പോകുന്നത് അപ്പം നടന്നു പോയി കഴിയുമ്പോൾ നമ്മളവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുട്ടികളുണ്ടാവും ഞങ്ങട കുട്ടികളെയും കൂട്ടിയിട്ടാണ് പോവാറ് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഉണ്ടാകും അപ്പം അവരെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ആ കുട്ടികളെയും കൂട്ടിയിട്ട് മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ അവിടെ ഒരു പാർക്ക് ഉണ്ട് അവിടെ പോയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ മുഴുപ്പിലങ്ങാട് ബീച്ച് എന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കും മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ വന്നിട്ടുള്ള ബീച്ച് ആണ് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഇരിക്കും അപ്പോൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ അവിടത്തെ ഒരു അന്തരീക്ഷം ഒരു ചുവന്ന കളർ ആയിരിക്കും നല്ല ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ താഴ്ന്നു വരുമ്പോൾ ഉള്ള ആ ഒരു ആ ഒരു ഭംഗി കാണാൻ വളരെ രസമായിരിക്കും അത് കാണാൻ കണ്ടിരുന്നു പോകും നമ്മൾ അതുകൊണ്ട് തന്നെ എത്ര കണ്ടാലും മതിവരാത്ത ഒരു ഒരു അനുഭവമാണത് എപ്പോഴും മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ പോകുമെങ്കിലും ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ പോയപ്പം അന്ന് ഞങ്ങൾ കണ്ട സൂര്യനൊരു പ്രത്യേക ഭംഗിയായിരുന്നു അതുകൊണ്ട് തന്നെ അതായിരിക്കും എനിക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവം